ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ബൈക്കിലാണ് ഞാൻ ദിവസവും ബൈക്ക് കഴുകാറുണ്ട് കറക്റ്റ് സമയങ്ങളിൽ ഞാൻ വണ്ടി സർവീസ് ചെയ്യാറുണ്ട് കട്ടറുള്ള റോഡിൽ കൂടി ഞാൻ വണ്ടി കൊണ്ടുപോകാറില്ല ഓവർ സ്പീഡിൽ പോകാറില്ല ആവറേജ് സ്പീഡിൽ മാത്രമേ പോകാറുള്ളൂ ബൈക്ക് യാത്ര എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നു എനിക്ക് ഏറ്റവും കംഫോർട്ട് ആയി തോന്നിയിട്ടുള്ളത് ബൈക്ക് യാത്രയാണ് എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ കഴിയുന്നുണ്ട് ദൂര യാത്രയ്ക്ക് ഒക്കെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനൊപ്പം ആണ് പോകാറുള്ളത് കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളും കാണാൻ നല്ലത് ബൈക്ക് യാത്രയാണ് ചില സാഹചര്യത്തെ അതായത് വേനൽക്കാലത്ത് വളരെ ദുഷ്കരമാണ് ബൈക്ക് യാത്ര അതുപോലെ തന്നെ മഴക്കാലത്തും ഡിസംബർ മാസത്തിനൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബൈക്ക് യാത്ര ആണ് നല്ലത് ബൈക്ക് യാത്രയും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഉന്മേഷത്തോടെ നിർത്താൻ കഴിയും ബൈക്ക് യാത്ര ബൈക്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റും ഉണ്ടായാൽ റിപ്പെയർ സാമഗ്രഹികൾ കൊണ്ട് പോകാറുണ്ട് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഇരുചക്ര വാഹനമായതു കൊണ്ട് തെന്നി വീഴാം അതുവഴി അപകടം സംഭവിക്കാം ബൈക് ചെറിയ വാഹനമായത് കൊണ്ട് മറ്റു വാഹനങ്ങളെ ഓവർ ടേക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ചെയ്യാനുള്ള സ്പേസും കിട്ടും ഞാൻ പുറത്തിറങ്ങുമ്പോൾ ചുരിദാർ ഒഴിച്ച് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ആണ് ധരിക്കുന്നത് കാരണം ഈ ബൈക്കിൻ്റെ ചക്രത്തിൽ എങ്ങനെയാണ് ഷാള് കുരുങ്ങിയാൽ എന്തെങ്കിലും അപകടം സംഭവിക്കും അതുകൊണ്ട് അതുകൊണ്ട് ജാഗ്രതയോടെയാണ് ഞാൻ ഡ്രസ്സ് ധരിക്കാറുള്ളത് ഒരു നമ്മുടെ ജീവൻ തന്നെയാണ് ആ അങ്ങനെ വരുമ്പം പൊഴിയുന്നത് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതിനും റീൽസ് ചെയ്യുന്നതിനും ബൈക്ക് ആണ് നല്ലത് അമിത വേഗം കുറച്ചാൽ മാത്രം മതി അത് അന്നേരം ബൈക്കിൽ യാത്ര ആയിരിക്കും ഏറ്റവും സുഖകരം ദൂരോട്ട് പോകുമ്പോൾ ബൈക്കിൽ രണ്ട് പേർ മാത്രമാണ് കൂടെ പോകുന്നത് കാരണം ഞങ്ങൾ കുട്ടുകാർ പല ബൈക്കുകൾ ആയിട്ട് ആണ് യാത്ര ചെയ്യുന്നത് യാത്രയും നല്ല യാത്രയായിരിക്കും ബൈക്കിൽ പോകുമ്പോൾ